നമ്മുടെ പാലക്കാട് ഒരുപാട് നെയ്ത്ത് അല്ലെങ്കിൽ നെയ്ത്ത് തുന്നലിന് ഒരുപാട് പ്രസിദ്ധമായ സ്ഥലങ്ങളുണ്ട് കുത്താംപുള്ളി എന്ന് പറയണ പാലക്കാട് സ്ഥലത്തെ അവിടെ അവിടത്തെ ഉള്ള ആൾക്കാർ സ്വന്തമായി നെയ്ത്ത് ഉണ്ട് നെയ്ത്ത് തുന്നൽ ചെയ്യുന്നവരുണ്ട് ഞാൻ അവിടെ ഓണത്തിന് സാരി എടുക്കാൻ വേണ്ടി സെറ്റ് സാരി എടുക്കാൻ വേണ്ടി അവിടെ പോയിരുന്നു ഒരുപാട് ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെത്തന്നെ നെയ്യുന്ന ആ ഒരു രീതി കാണാൻ നല്ല രസമാണ് അങ്ങനെ നെയ്ത്തണ നെയ്ത്ത് തുന്നൽ എന്ന് പറയുമ്പോൾ ആ രീതികളെന്ന് പറയുമ്പോൾ ആ നൂലിനെ ആ നൂലിനെക്കൊണ്ട് നമ്മൾ ഒരുപാട് പണി ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പിന്നീട് അതൊരു തുണിയായി മാറുന്നത് അതുപോലെത്തന്നെ എൻ്റെ വീട്ടിൻ്റെ അടുത്തും ഒരു നെയ്ത്ത് തുന്നലുണ്ട് അവിടെയും ഇതുപോലെ കുത്താംപുള്ളി പോലെ വലുതല്ല പക്ഷേ നല്ല ചെറിയൊരു യൂണിറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് അവിടെ കുറച്ച് സ്ത്രീകൾ വിട്ടമ്മമാരായ കുറച്ച് സ്ത്രീകളാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ പോയപ്പോഴും ഈ ഒരു നെയ്ത്ത് തുന്നലിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നല്ല നല്ല നമ്മൾ കുറച്ച് പരിശ്രമിച്ചാൽ അല്ലെങ്കിൽ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് തീർച്ചയായും കുഴപ്പമില്ല പരമ്പരാഗത വസ്ത്രങ്ങൾ ഞാൻ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ എനിക്ക് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ അത്ര അറിയില്ല എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് പക്ഷേ ഒന്നും വിജയകരമായിട്ട് അവസാനം നടക്കാറില്ല